കർഷകരും വീട്ടുമുറ്റത്ത് കോഴിയെ വളർത്തുന്നവരും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോട് കൂടിയാണ് കോഴികളെ വളർത്തുന്നത് കർഷകർ പ്രധാനമായും വരുമാനം നേടുക ഉയർന്ന ഉൽപാദനം ലഭിക്കുക രോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളെ തെരഞ്ഞെടുക്കുക പിന്നെ കാര്യക്ഷമത തീറ്റ കുറവും കൂടുതൽ പ്രയോജനവും കിട്ടുന്ന രീതിയിലുള്ള കോഴിയെ കോഴിയുടെ ഇനത്തെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെയാണ് അവർക്കുള്ളത് അവർക്ക് പ്രധാനമായും ഇതിൽ നിന്ന് വരുമാനം നേടുകയെന്നുള്ളതാണ് ലക്ഷ്യം അതേ സ്ഥാനത്ത് വീട്ടുമുറ്റത്ത് കോഴിയെ വളർത്തുന്നവരുടെ ഉദ്ദേശമെന്നു പറയുന്നത് സ്വന്തം ഉപയോഗത്തിനു വേണ്ടിയും പരിസ്ഥിതിയുടെ സൗഹൃദത്തിനു വേണ്ടിയുമൊക്കെ പരിമിതമായൊരിടത്തിൽ ഉള്ളയിടത്തിൽ ശകലം അഞ്ച് ആറ് കോഴിയെ വളർത്തുകായെന്നുള്ളതാണ് അവർക്ക് സാമ്പത്തികമായ നേട്ടം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല അവർ അവർ പരമാവധി ജൈവമെന്ന രീതീൽ നല്ല നല്ല തീറ്റകൾ ഇട്ട് കൊടുത്ത് കോഴിയെ വളർത്താൻ പ്രധാനമായും നോക്കുന്നു പിന്നെ നമ്മൾ ഈ കോഴീടെ ഇണയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പല പല പല ഇത് നോക്കേണ്ടതുണ്ട് ഒന്നാമത്തെയിതെന്ന് പറയുന്നത് ലോ രോഗ പ്രതിരോധശേഷിയും വളർച്ച പെട്ടന്ന് വളർച്ച ഉള്ള കോഴിയും അങ്ങനെയൊക്കെയുള്ള പിന്നെ ഉൽപ്പാദന ക്ഷമത നന്നായിട്ട് ഉൽപ്പാദനശേഷിയുള്ള കോഴികളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും അതുകൂടാതെ ഈ ശാരീരികമായ സവിശേഷതകളും ഇതിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ട് അതിൽ വലിപ്പം അതിൻ്റെ നിറം അതിനെ കാണാനുള്ള ആകൃതി എന്നിവ പോലുള്ള സവിശേഷത സവിശേഷതകളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് പിന്നെ പരിഗണിക്കേണ്ടയിതെന്ന് പറയുന്നത് സൗമ്യമായ ഇത് ഇതുള്ളതായിരിക്കണം ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള കരി കരിങ്കോഴികളും അതുപോലെ തന്നെ പോരുകോഴികളും പറയുന്നത് പറയുന്ന കോഴി ഇനങ്ങൾ നമ്മളെ കൊത്തും മനുഷ്യരെ കൊത്താൻ വരും അതുപോലത്തെ ഇനത്തിനെ വളർത്തിയാൽ നമുക്ക് തന്നെ ദോഷമായിരിക്കും അപ്പോൾ അതുപോലെ ഉള്ള കോഴി വരാതിരിക്കാൻ നോക്കണം അതുപോലെ തന്നെ രോഗങ്ങളോ അങ്ങനെ ആ ആരോഗ്യമ പരമായ പ്രശ്നങ്ങളൊന്നൂല്ലാത്ത കോഴി കോഴികളെ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ ഈ തെരഞ്ഞെടുക്കുന്ന ഈ പ്രായം പരിഗണിക്കേണ്ടതാണ് കോഴി ചെറുപ്രായത്തിലുള്ള മൃഗങ്ങളെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളും ചെറുപ്പമുള്ള മൃഗങ്ങളെയൊക്കെ പരിപാലിക്കാൻ പരിപാലിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താപനില നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് അത്ങ്ങളെ നമ്മൾ വളർത്താൻ കൊണ്ടുവരുന്നതെങ്കിൽ അവർക്ക് ചെറിയ രീതീൽ തണൽ കിട്ടുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കൃത്യസമയത്ത് അവയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോവെന്ന് ഉറപ്പ് വരുത്തുക വെള്ളം കുടി തുടങ്ങിയ മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുക കൃത്യമായ രീതിയിൽ ഇലകളും ഫീഡുകളും ഒക്കെ കിട്ടുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തുക